ഞാനിപ്പോള് ഒരു പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങാനുദ്ദേശിക്കുകയാണ് ഓൺലൈനില്നിന്ന് ഫ്ലിപ്കാർട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് ഫ്ലിപ്പ്കാർട്ടെന്ന പ്ലാറ്റ്ഫോമിലൂടെയാണ് ഞാൻ പുതിയ ഒരു ഫോൺ ഓർഡര് ചെയ്യാനുദ്ദേശിക്കുന്നത് എനിക്ക് അതില് നോക്കിയപ്പോള് ഏറ്റവും നല്ല ഓഫറുള്ള ഫോൺ സാംസങ്ങാണ് സാംസങ്ങ് എസ് ട്വൻറ്റി ത്രീയാണ് എൻ്റെ ബഡ്ജറ്റിനുള്ളൊരു ഫോണായിട്ട് ഞാൻ കണ്ടത് എൻ്റെ കയ്യിലൊരു ഗൂഗിൾ പേ വഴി ഒരു പ്രമോ കോഡ് കിട്ടി അത് കൊടുത്താൽ എനിക്ക് രണ്ടായിരം രൂപ കിഴിവുണ്ട് അപ്പോള് ഞാനാണെങ്കില് ആ ഫ്ലിപ്പ്കാർട്ടിൽ പർച്ചേസ് ചെയ്തു ഫസ്റ്റ് ഓർഡര് പ്ലേയ്സെയ്തു എന്നിട്ട് ഞാൻ ഈ എനിക്ക് കിട്ടിയ ഈ പ്രമോ കോഡ് ഒരിക്കല് എൻറ്റൊരു സുഹൃത്ത് ഞാനൊരു അമ്പതിനായിരം രൂപ അയച്ചപ്പോള് കിട്ടിയ ഒരു പ്രമോ കോഡാണത് ക്യാഷ് ബാക്ക് വഴി ഈ പ്രമോ കോഡ് ഞാൻ ഈ ഫ്ലിപ്പ്കാർട്ടിൽ പൈസ കിഴിവിന് വേണ്ടി വച്ചു വച്ചപ്പോള് എനിക്ക് ഒരു രണ്ടായിരം രൂപ കുറഞ്ഞ് കിട്ടി അങ്ങനെയാണ് എനിക്ക് ഈ ഫോണ് എസ് ട്വൻറ്റി ത്രീ അൾട്രാ എനിക്ക് അറുപതിനായിരം രൂപയ്ക്ക് കിട്ടിയത് യഥാർത്ഥത്തില് ഇതിന്റെയൊരു വില അറുപത്തി രണ്ടായിരം രൂപയാണ് എനിക്ക് അറുപതിനായിരം രൂപയ്ക്ക് കിട്ടി ഇതെനിക്ക് വളരെ ഉപകാരമായിരുന്നു ഈ പ്രമോ കോഡില്ലായിരുന്നെങ്കില് എനിക്ക് രണ്ടായിരം രൂപ ഞാൻ അധികമായിട്ട് കൊടുക്കുകയും വേണമായിരുന്നു എനിക്ക് അത് എന്നെക്കൊണ്ട് അഫൊർഡെയ്യാൻ പറ്റത്തില്ല കാരണമെൻ്റെ കയ്യില് അറുപതിനായിരം രൂപയേ ഉള്ളു ഇപ്പോഴെനിക്കിത് നല്ലൊരു ഭാഗ്യമായിട്ട് കരുതുന്നു ഈ പ്രമോ കോഡുള്ളതും എനിക്ക് ഇങ്ങനെ ഒരു ഫോൺ വാങ്ങാൻ പറ്റിയതിലും സന്തോഷമുണ്ടെനിക്ക് ഈ പ്രമോ കോഡുള്ളതുകൊണ്ട് അധിക കിഴിവ് എനിക്ക് അധിക കിഴിവ് എനിക്കെങ്ങനെ സ്ഥിരീകരിച്ചെന്ന് ചോദിച്ചാല് ഈ പ്രമോ കോഡ് ഞാൻ ഈ നാവിഗേറ്ററില് ക്ലിക്ക് ഈ നമ്പറടിച്ച് കൊടുത്തപ്പോള് ഓട്ടോമാറ്റിക്കലി അറുപത്തി രണ്ടായിരം എന്ന സംഖ്യ അറുപതിനായിരം രൂപയായി ഈ പ്രമോ കോഡുള്ളത് കൊണ്ട് മാത്രം അങ്ങനെയാണ് ഞാനീ ഈ പൈസ എനിക്ക് കിഴിവ് കിട്ടിയതും ഞാനങ്ങനാണ് ഈ പ്രമോ കോഡ് എന്റേത് വാലിഡേറ്റ് ചെയ്യുമെന്നും സ്ഥിരീകരിച്ചതെന്നും എനിക്ക് മനസ്സിലായത് അങ്ങനെ ഞാൻ ഒരു സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ത്രീ അൾട്രാ എന്ന ഒരു ഫോണ് വാങ്ങുകയും ചെയ്തു